ഹലോ ആ ഹലോ പറഞ്ഞോ ആ അതേലോ ആ അതേ അതേ അതേ ഹൗസ് ബ്രോക്കറാണ് ബ്രോക്കറാണ് ആ പറഞ്ഞോ ആ ഓക്കെ നമുക്ക് വീടുകളുണ്ടല്ലോ എവിടെയായിട്ടാണ് എങ്ങനത്തെ വീടാണ് നോക്കുന്നത് ആ ഓക്കെ ആ അപ്പം ഇടുക്കിയുടെ ഹൈ റേഞ്ച് ഹൈറേഞ്ചിൽ തന്നെ വേണമല്ലേ ആ ശരി ശരി ഓക്കേ അടുത്ത് വേണം ആ ഓക്കേ ഓക്കേ ആ ആ പ്രൈവസിയൊക്കെ കിട്ടുന്ന സ്ഥലവൊക്കെ വേണം അല്ലേ മ്മ് മ്മ് ആ ഓക്കെ അപ്പം നമുക്ക് ഇടുക്കിയിൽ അങ്ങനത്തെ നല്ല വീടുകളൊക്കെ ഉള്ളത് ഇപ്പം പാണ്ടിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇടുക്കി ജില്ല ഇടുക്കി ഡാമിൻ്റെ ഒക്കെ അടുത്ത് നിന്നൊരു ഏഴ് കിലോമീറ്ററൊക്കെ ഉള്ളു ഈ പാണ്ടിപ്പാറാന്ന് പറയുന്ന സ്ഥലത്തിന് ഇല്ല ഇല്ല ഇല്ല വെള്ളപ്പൊക്കഭീഷണി ഒന്നുമില്ല നമുക്കിവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നാലും അതൊന്നും വീടുകളൊക്കെ പണിയുന്ന സ്ഥലങ്ങളെല്ലാം ഒരുമാതിരി നിരപ്പായിട്ടുള്ളതും അങ്ങനെ ഒക്കെ ഉള്ളത് നോക്കിയിട്ടാണ് വീടുകളൊക്കെ പണിതേക്കുന്നത് എല്ലാ വീടുകളും

ആണല്ലേ ആ ഓക്കെ നാല് ബെഡ്റൂം ഉള്ള വീടുകൾ ഒറ്റ നിലയായിട്ടുള്ളതിന് റെയ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് നല്ല റെയ്റ്റ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ടൂറിസവും ഒക്കെ വരുന്നതുകൊണ്ട് ഇടുക്കി ഡാമുവായിട്ടും കല്ല്യാണത്തണ്ട് പത്താംമൈല് ഒക്കെയിങ്ങനെ ടൂറിസം സെൻ്ററുകളും വ്യൂ പോയിൻ്റുകളും റിസോർട്ടുകളൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പം ഇച്ചിരി വില കൂടിനിൽക്കുന്ന സമയമാണ് അങ്ങനെ പുതിയതായിട്ട് ആളുകൾ പിന്നെ വിൽക്കാനായിട്ട് പ് പണിത് ഓൾറെഡി ആരും താമസിക്കാത്ത വീടുവേണം എന്നുണ്ടോ അതോ ഓൾറെഡി രണ്ടാമത് വിൽക്കുന്ന വീടാണെങ്കിലും കുഴപ്പമില്ല അല്ലേ ആ ആ അപ്പം ആളുകൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതിട്ട് പിന്നീട് വിൽക്കുന്ന വീടുകളാണ് അപ്പം താൽപര്യം പണിതേക്കുന്നത് ആ ബ്രോ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നാ ആളുകൾ ഒരു അഞ്ചുവർഷത്തിന് ഒക്കെ താമസിച്ചിട്ട് വിൽക്കുന്ന ഒന്ന് രണ്ട് വീടുകളുണ്ട് അവർ വേറെ ആവശ്യത്തിനുവേണ്ടി അവരൊന്നും വിൽക്കാൻ വേണ്ടി പണിയുന്ന വീടുകളല്ല അല്ലാണ്ട് തന്നെ ആ പിന്നീട് പണിത്കഴിഞ്ഞിട്ട് അവർ വേറെ ആവശ്യത്തിനുവേണ്ടി ഇവിടെ നിന്ന് സ്ഥലം മാറി പോകുന്ന ഗവൺമെൻ്റ് സ്റ്റാഫും ഒക്കെ ഇങ്ങനെ സ്ഥലം മാറിപ്പോയതുകൊണ്ട് അവർ വിറ്റിട്ട് പോകുന്ന വീടുകളും ഉള്ളു ആ ഓക്കെ അ അങ്ങനെയാണേൽ നമുക്ക് ഇപ്പോൾ ആ ഒരു

ആണല്ലേ ആ ആ ആ അങ്ങനെ ചെയ്യാം ആ അപ്പം അപ്പോൾ ഈ പ്ലോട്ട് ആ ആ ഉണ്ട് ഉണ്ട് താമസിക്കാത്ത വീടുണ്ട് പക്ഷേ ആ താമസിക്കാത്ത വീടുണ്ട് അത് രണ്ട് നില രണ്ട് ബഡ് റൂം താഴെ ഹാൾ ആ അതുപോലെ അടുക്കളയും ഒക്കെ ഉള്ള ഒരു വീടുണ്ട് കാർ പോർച്ച് ഉള്ള ഒരു വണ്ടി ഒരു ബൈക്കൊക്കെ ഇടാവുന്ന കാർ പോർച്ചും മുറ്റവും ഒക്കെയുള്ള ഒരു വീടുണ്ട് അതൊരു പതിനഞ്ച് സെൻ്റ് പ്ലോട്ടാണ് ആ അത് അങ്ങനെ ഒരു വീട് വെള്ളം കൊ ആ കെണറിൽ എല്ലാ സമയത്തും വെള്ളം കിട്ടില്ല ബോർവെൽ പക്ഷേ ഉണ്ട് പക്ഷേ അത് നല്ല വെള്ളവാണ് കുടിക്കാവുന്ന ഫിൽട്ടറൊന്നും വെക്കാണ്ട് രുചി വ്യത്യാസം ഒന്നും ഇല്ലാത്ത നല്ല വെള്ളമുള്ള കുഴൽക്കിണറൊക്കെയുള്ള വീടുണ്ട് റീഫില്ലിങ്ങൊക്കെ നടക്കുന്നതുകൊണ്ടേ മഴയൊക്കെ നല്ല മഴക്കാലത്തൊക്കെ റീഫില്ലിങ്ങ് നടക്കുന്നതുകൊണ്ട് വെള്ളം അങ്ങനെ മോശമായിട്ടുള്ളതൊന്നുമല്ലേ ഇല്ലെങ്കിൽ ഇപ്പോൾ ഉടനെതന്നെ വേറെ പഞ്ചായത്തിൻ്റെ ഇത് പദ്ധതിയിൽ വരുന്ന കുടിവെള്ള പദ്ധതിയൊക്കെ വരുന്ന സ്ഥലവും കൂടെയാണ് താൽപര്യം

ഓക്കെ അങ്ങനെയാണേൽ ഓക്കെ എന്നാൽ ശരി അങ്ങനെയാണേൽ ഞാൻ കാണാൻപറ്റുന്ന ദിവസം നോക്കിയിട്ട് വിളിക്കാം ആ നാളത്തേന് നാളെ കാണാലോ ആ നാളെ കാണാം നാളെ തങ്കമണിക്ക് ഇറങ്ങിയാൽ മതി തങ്കമണിയിൽ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അതെ അതെ അതെ അതെ അതെ അതെ

ആ ഓക്കെ ശരി ശരി ഞാൻ വിളിച്ചാൽ മതി നോക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് നാളെ കാണുമ്പം ബാക്കി സംസാരിക്കാൻ പറ്റും ഓക്കെ ശരി ആ ഓക്കെ ആ ഓക്കെ ശരി ശരി ശരി